അതേല്ലോ ആരായിരുന്നു ആ ഓക്കേ പറഞ്ഞോളൂ എന്തോരം വേണ്ടിവരും ആ ഓക്കേ എപ്പോഴത്തേക്കാ വേണ്ടത് ആ ഓക്കെ ഡെലിവറി എങ്ങനെയാ ഓൺലൈൻ ഡെലിവറിലാക്കണോ അതോ നിങ്ങൾ വന്ന് എടുക്കുമോ ആ ഓക്കെ ആ ഓക്കേ ഏഴുമണിയാകുമ്പോഴേക്കും അവിടെ റെഡിയാക്കി വന്നേക്കാം മറ്റ് ഫ്രൂട്ട്സ് എന്തെങ്കിലും വേണോ

തേൻനെല്ലിക്കയ്ക്ക് കിലോ മുപ്പത്തഞ്ച് ആ മറ്റുള്ളവ വേറെ എന്തായിരുന്നു വേണ്ടത് നെല്ലി നെല്ലിക്ക ആ ഏത്തക്കയ്ക്ക് അൻപതു രൂപ നെല്ലിക്ക ആ നെല്ലിക്ക അൻപതു രൂപ അഞ്ച് കിലോയ്ക്ക് അതെ ഓക്കെ ഓക്കെ ആപ്പിള് അറുനൂറ് അറുപത് അറുപത് അരക്കിലോ ആ അരക്കിലോ അല്ലേ ഓക്കെ ഓക്കെ ആ ഓറഞ്ച് എഴുപത് രൂപയാണ് കിലോയ്ക്ക് ഓക്കേ വേറെയെന്തെങ്കിലും മാതളനാരങ്ങ പിന്നെ എന്തെങ്കിലും ആ ഉണ്ടല്ലോ അതും ഇതുപോലെത്തന്നെ സെയിം റേയ്റ്റാ അൻപത് അറുപത് അതൊക്കെയായിട്ട് മ്മ് പല ആ ഓക്കെ ഓക്കെ കുഴപ്പം ഇല്ല കുഴപ്പം ഇല്ല ചാർജ് ഫുള്ള് ആയിട്ട് വരുമ്പം എമൗണ്ട് നോക്കണം നോക്കിയിട്ട് ഞാൻ ആ പറയാം മ്മ്

ഡ്രാഗൺ ഫ്രൂട്ട് ഉണ്ട് ഡ്രാഗൺ ഫ്രൂട്ട് ആണ് ഇവിടെ മെയിൻ ആയിട്ട്

അതിൻ്റെ റേറ്റ് മൂന്നുറ് രൂപ കിലോയ്ക്ക്

ഓക്കേ മറ്റ് ഫ്രൂട്ട്സ് എന്തെങ്കിലും ഫലമുണ്ട് ഫലമുണ്ട് സീതഫലമുണ്ട് പിന്നെ ബനാന അങ്ങനെ വല്ലതും വേണോ പേരക്ക ചാമ്പയോ അങ്ങനെന്തെങ്കിലുമൊക്കെ ചൊമന്നതുമുണ്ട് വെളുത്തതുമുണ്ട് രണ്ടും അഞ്ച് കിലോ വീതം ഓക്കേ ബില്ല് കൊണ്ടുവരണോ അതോ ആ ഓക്കെ ഡിസ്കൗണ്ട് ഒക്കെയുണ്ട് എല്ലാവർക്കും എല്ലാവർക്കും ഇപ്പം ഒരു അമ്പത് അമ്പതിനായിരം രൂപ ഓ സോറി രണ്ടായിരം രണ്ടായിരം രൂപയ്ക്ക് അടുത്തൊക്കെയായിട്ട്

എടുക്കും എടുക്കും ഏഴുമണിയല്ലേ സമയം പറഞ്ഞേക്കുന്നത് ആ ഏഴുമണി ആവുമ്പം അവിടെ എത്തിച്ചേക്കാം ലൊക്കേഷൻ ഒന്ന് അയക്കാൻ പറ്റുമോ ആഹ് ബൈക്കിലാ ബൈക്കിലാ കൊണ്ടുവരുന്നത്

ഉണ്ടല്ലോ ഉണ്ട് ഉണ്ട് മ്മ് അപ്പോൾ ഏഴുമണിക്ക് കൊണ്ടുവന്നേക്കാവേ ശരി താങ്ക് യൂ